ആ നമസ്ക്കാരം അതെ അതെ ആ ആ ഇവിടെ മുട്ടക്കറിയും ആ ഗ്രീൻ പീസ് ഉണ്ട് വെജിറ്റേറിയൻ നോൺവെജും ഉണ്ട് ഏതാ വേണ്ടത് ആ ആ ശരി ഇതെവിടെയാ എവിടെയാ എവിടെയാ ചേച്ചി എന്തോ ആ ആ ഉണ്ട് ട്ടാ റോഡ്സൈഡ്ത്തെ അ ഉവ് ഉവ് ആ ആ ആ എന്ത് ആ കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ ഉണ്ട് ശകലം സമയം ശകലം സമയെടുക്കും ഇപ്പോൾ തിരക്കുള്ള സമയാണ് എപ്പോഴത്തേക്കാ ചേച്ചിക്ക് വേണ്ടത് ഇത് ആ അഞ്ച് മണിയാകുമ്പോൾ അവിടെ ആ അ ഉവ് ഉവ് ആ ആ ഓക്കെ ആ ആൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് ആളുണ്ട് പക്ഷെ ഇപ്പോൾ തിരക്കാണ് ഇപ്പോൾ തിരക്കുള്ള സമയമാണെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരക്കുണ്ട് ആ പത്ത് മിനുറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചെയ്തൊട്ടേ ചേച്ചി ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോക്കാരുടേ കൊടുത്തു വിട്ടാൽ മതിയോ ഓട്ടോക്കാരുടെ അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതിയോ ഉം അപ്പോൾ അപ്പോൾ അന്ന് ആ ആ അപ്പോൾ അപ്പോൾ ആ അപ്പോൾ അതിൻ്റെ ആ ഓട്ടോയുടെ കാശുകൂടെ കൊടുക്കണേ അവർക്ക് ഓട്ടോ കാശ് കൂടെ കൊടുത്തേക്കണേ ആ അ ആ ആ അപ്പോൾ ചായയും മുട്ടക്കറിയും ബ്രഡും ഗ്രീൻപീസുകറി ബീഫുണ്ട് ഉണ്ടുണ്ട് ഉണ്ടുണ്ട് ബീഫുണ്ട് ബീഫും ഉണ്ട് ചിക്കെനും എല്ലാമുണ്ട് ആ ബീഫൂണ്ട് ചിക്കനൂണ്ട് ബീഫ്ക്കറി കൊടുത്തു വിട്ടാൽമതി ഞാൻ അപ്പോൾ അപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് പൊറാട്ടയുണ്ട് ആ രണ്ട് പൊറാട്ടായും എനിക്ക് അതിന് കറി വേറെ വേണോ കറി വേറെ വേണോ കറി വേറെ വേണോ ബീഫ് കറി മതി അതുമാത്രം മതി ആ വേണ്ട ഉം ഒരു ചായ ഒരു ചായ ഒരു പാക്കറ്റ് ബ്രഡ് ആ പൊറോട്ടയും പിന്നെ കട്ടൻ ചായയും വേണം കട്ടൻ ചായ ആ കൊടുത്തു വിടാം ഞാൻ ഇപ്പോൾ ഓട്ടോക്കാരൻ്റെയിൽ കൊടുത്തുവിടാം ആ അ ആ ബില്ല്

കൊടുത്തുവിടാം കൊടുത്തുവിടാം ബില്ലും ബില്ലും കൊടുത്തു വിടാം ആ ബിൽ ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ്റെയിൽ തന്നെ കൊടുത്തു വിട്ടോ ബില്ല് കൊടുത്തുവിട്ടാൽമതി ആ ആ ശരി ആ ഉവ്വ് കുരിശുമൂല ആ ഓ അല്ല ചേച്ചി അവിടെ വരും വീട്ടിൽ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽമതി വിളിച്ചാൽമതി അന്നേരം ഞാൻ കൊടുത്തു വിട്ടോളം ആ ഇവിടെ വാതിൽക്കൽ ഓട്ടോക്കാരനുണ്ട് അന്നേരം ഞാൻ തന്നെ കൊടുത്തു വിട്ടോളം ആ ശരി ശരി ചേച്ചി താങ്ക് യു താങ്ക് യൂ